ആ ബോധവൽക്കരണ ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഇങ്ങനെ പരിപാടികളൊക്ക സർക്കാര് നടത്താറുണ്ട് ഒന്ന് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് കൂടുതലും മഴക്കാലത്താണ് അതായത് ഡെങ്കിപ്പനിയെക്കുറിച്ചും എലിപ്പനിയെക്കുറിച്ചും അങ്ങനെയുള്ളതൊക്കെ അങ്ങനെയുള്ള ക്ലാസുകളൊക്കയാണ് തരാറ് പിന്നെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള വെള്ളമൊക്കെ മറിച്ചുകളയുക ക്ലാസില് അങ്ങനെയൊക്കെയാണ് പറയുക അതായത് വെള്ളം കെട്ടി കിടക്കുന്നതൊക്കെ മറിച്ചുകളയുക പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക ഈ എലിപ്പനി ഡെങ്കിപ്പനി അങ്ങനെയൊക്കെ വരാതിരിക്കാന് പിന്നെ നമ്മളീ റോഡിലൊക്കെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തില് കയറി ചവിട്ടാതിരിക്കുക അങ്ങനെ ചവിട്ടുമ്പോളെന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മുടെ കാലില് എന്തെങ്കിലും പൊട്ടൊക്കെയുണ്ടെങ്കില് എലി മൂത്രമൊക്കെ ഒഴിച്ചുവെച്ചിട്ടുണ്ടെങ്കില് നമുക്ക് അതുവഴി ഇൻഫെക്ഷനുണ്ടായി നമുക്ക് എലിപ്പനിയുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയൊക്കെയാണ് കൂടുതലും പിന്നെ കുരങ്ങുപനി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതായത് ഈ പകർച്ചവ്യാധികള് അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഇവര് കൂടുതലും ഇങ്ങനത്തെ മുൻകരുതലുകളൊക്കെ നമുക്ക് ആദ്യമേ എടുക്കാന് വേണ്ടി നമുക്ക് പല ക്ലാസുകളും തരും അത് ഗ്രാമസഭയിലോ അല്ലെങ്കില് നമുക്കിങ്ങനെ അംഗണവാടിയിലോ കുടുംബശ്രീകളിലോ അങ്ങനെയുള്ള എല്ലാ സ്ഥലത്തുമാണ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് കൂടുതലും ബോധവൽക്കരണ ക്ലാസുകള് സർക്കാര് നടത്താറ്